ഞാന് ഈ ജൂൺ പതിനേഴാം തീയതി എയർപോർട്ടിലേക്ക് എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാന് ഈയൊരു ക്യാബ് അശ്വിനെന്ന പേരില് ആൾ അദ്ദേഹത്തിൻ്റെയൊരു ക്രിസ്റ്റ ഇന്നോവ ക്രിസ്റ്റയാണ് ബുക്ക് ചെയ്തത് ആ കാറ് ബുക്ക് ചെയ്ത് അദ്ദേഹവുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത് വളരെ സെയ്ഫായിട്ടും വളരെ നല്ല രീതിലുമാണ് ആ യാത്ര ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജൂലൈ നാ ജൂലൈ എട്ടാം തീയതി എനിക്ക് വീണ്ടും എറണാകുളത്തേക്ക് ഒരു യാത്ര ഉണ്ട് അപ്പോൾ ഈയൊരു സെയിം കാറും ഡ്രൈവറും തന്നെ ക്യാബ് തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് ചെയ്യണം എന്ന് എനിക് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ട്രാവൽ ഏജൻസിയുമായിട്ട് കണക്ട് ചെയ്തത് എനിക്ക് ഈ ഇന്നോവ ക്രിസ്റ്റ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഞാന് ജൂൺ മാസം യാത്ര ചെയ്ത ഈ ഇന്നോവ ക്രിസ്റ്റ തന്നെ എനിക്ക് ജൂലൈ എട്ടാം തീയതി എറണാകുളത്തേക്ക് യാത്ര ചെയ്യാനും വേണമെന്ന് അറിയിച്ചത് അപ്പം ഇതിനുവേണ്ടിട്ടുള്ള കാര്യങ്ങള് ചെയ്ത് തരാം